ഞാൻ ഒരു കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജരായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു അപ്പം എനിക്ക് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രോജക്ടിലേക്കൊരു അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എനിക്ക് ഫോം ചെയ്യണമായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അതിലേയ്ക്ക് അഞ്ച് പേരെ സെലെക്റ്റ് ചെയ്തു അപ്പം ഞാൻ ആ ടോപിക്ക് അവരോട് ഡിസ്കസ് ചെയ്തു അതിനെ കുറിച്ചുള്ള നോളജും കാര്യങ്ങളും എല്ലാം അവർ അവർക്കുള്ള നോളജും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ അവരെ ആ ഗ്രൂപ്പിലേക്ക് ഇൻവയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ അവർടെ അടുത്തുന്നുണ്ടായ എനിക്ക് ഒരു റെസ്പോണ്ട് അവർടെ അടുത്തുന്നുണ്ടായ റെസ്പോണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു രണ്ടു പേരിൽ നിന്നുണ്ടായ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം ഞാൻ അവരോട് ഓൾറെഡി ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചും അതിൻ്റെ കാര്യം ടോപ്പിക്കിനെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവരെനിക്ക് തന്ന റെസ്പോണ്ട് എന്ന് പറയുന്നത് വളരേ മോശമാണ് നല്ല രീതിയിലാണെങ്കിൽ അവർ ഈ ഒരു പ്രോജകറ്റാണെങ്കിൽ ചെയ്യാതെ എന്താ അധികം ഇതിനധികം എഫേർട്ടില്ല എങ്കിൽ പോലും ഈ ഒരു പ്രോജക്റ്റ് എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ വിജയകരമാകുമായിരുന്നു പക്ഷേ അവർടെ ആ ഒരു സൈഡിന്നുള്ള റെസ്പോണ്ട് കാരണം എനിക്ക് ഈ ഒരു പ്രോജക്റ്റാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നിരുന്നാലും എൻ്റെ ബാക്കിയുള്ള ബാക്കി മൂന്ന് ഗ്രൂപ്പ് മൂന്ന് പേരും കൂടി മൂന്ന് പേരും ഞാനും കൂടി ചേർന്നിട്ടാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് വിജയകരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നാൽ എനിക്ക് അറി അത്രയും അറിയാവുന്നവരും വേണ്ടപ്പെട്ട പേർസണലായിട്ടുള്ള ആൾക്കാരാണ് എൻ ഈ ഒരു ഇങ്ങനെ ഒരു ബാഡ് റെസ്പോണ്ട് എനിക്ക് ബാഡ് റെസ്പോണ്ട് എനിക്ക് തന്നത് ഞാനാണെങ്കിൽ അതിൽ എനിക്ക് നല്ല ഇതിണ്ട് എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോയി